എൻ്റെ ഫസ്റ്റ് ഫോണെന്ന് പറയുന്നത് ഓപ്പോ എ ഫൈവ് ട്വൻറ്റി ട്വൻറ്റിയാണ് ഞാൻ അത് വളരെ നല്ലൊരു ഫോണാണ് കാരണം അത് അത്യാവശ്യം നല്ല ബാട്ട്റി ബാക്ക് കിട്ടും അത്യാവശ്യമല്ല ഫൈതൗസൻഡ് എം ഐ എസിൻ്റെ ഒരു ലോങ്ങ് ലാസ്റ്റിംങായിട്ടുള്ള ബാട്ട്റി ബാക്കപ്പ് കിട്ടും ക്യാമറ കൊള്ളാമായിരുന്നു ഡിസ്പ്ലൈയ്സ് കൊള്ളാമായിരുന്നു ഡ്യൂറബിലിറ്റി അത് പറയാതിരിക്കാൻ തന്നെ വയ്യ കാരണം അത് ഇപ്പോൾ താഴെ പോയാലും അത് അടിപൊളി ഡ്യൂറബിലിറ്റിയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം അത് അടിപൊളിയാണ് കാരണം അതെൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല അത് അഫോർഡബിൾ പ്രൈസിലുമാണ് ഞാൻ എന്തോ ട്വൽവ് തൗസൻഡ് സംതിങ് എറൗണ്ട് ആണ് ഞാൻ അത് മേടിച്ചത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ വാങ്ങിയ ഫോണിൽ ഞാനത് സാറ്റിസ്ഫൈഡാണ് ആ പ്രൈസങ്കിൽ ഞാനത് പ്രിഫർ ചെയ്യുകയും ചെയ്യും ഒരാളിപ്പോൾ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾടെ യൂസിന് വെച്ച് ഞാൻ പറയാം അത്യാവശ്യം ഹെവി യൂസിന് അത്യാവശ്യമല്ല അത് ഹെവി യൂസിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതു കൂടെയാണ് ബാക്കപ്പും കിട്ടും ചാർജ് കേ കേറുന്നത് നോർമൽ ഫോൺ ചാർജ് കേറുന്ന പക്ഷേ ബാക്കപ്പ് കൊള്ളാമായിരുന്നു ബാക്കപ്പും ക്യാമറയും ഡിസ്പ്ലെ ഒക്കെ ഇറ്റ്സ് ഓസം അത് നോക്കുമ്പം അയ് ആം റിയലി സാറ്റിസ്ഫൈഡ്